അതായത് നമ്മുടെ പ്രദേശത്തൊക്കെ പതിവായിട്ട് കാണപ്പെടുന്ന പക്ഷികളേതൊക്കെയാണെന്ന് വച്ചാൽ മെയിനായിട്ട് കാക്കകൾ കാണും കാരണം എന്ന് വച്ചാൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും കാക്കകൾ ഒരുപാട് കാണാറുണ്ട് ഇപ്പോൾ കടൽ തീരത്ത് കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാക്കകൾ ഒരുപാടുണ്ടാകും ഈ വേസ്റ്റ് കൊത്തിത്തിന്നാനും അങ്ങനെയൊക്കെ പിന്നെ എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ കാണുന്നതെന്ന് വച്ചാൽ ചെറിയ ചെറിയ കിളികളെയോ ക്കെ കാണാറുണ്ട് അതായത് അതും അങ്ങനെ ഒന്നും കാണാറില്ല വല്ലപ്പോഴുമൊക്കെയേ കാണാറുള്ളൂ ഇപ്പോഴെന്ന് വച്ചിട്ടു ണ്ടെങ്കിൽ അതിനൊക്കെ വംശനാശം സംഭവിച്ചു തുടങ്ങി പിന്നേയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കാണാമെന്ന് വച്ചാൽ ചെറിയ അരിപ്രാവിനെ കാണാറുണ്ട് ചെറിയ ചെറിയ അതും എപ്പോഴൊന്നും കാണാറില്ല വല്ലപ്പോഴുമൊക്കെ കാണാറുള്ളൂ അതിപ്പോൾ നമ്മളടുത്തു പോകുമ്പോൾ അത് അങ്ങ് പറന്ന് പോവുകയും ചെയ്യും അപ്പോൾ എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാണ് അരിപ്രാവിനെ ഇഷ്ടമാണ് പിന്നെ ഈ ചെറു തേനൊക്കെ കുടിക്കാൻ വരുന്ന ചെറിയ ചെറിയ കിളികൾ അത് ചെറിയ കൊക്കും കാര്യങ്ങളൊക്കെ ഉള്ള കിളികളെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ അതെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ക്യൂട്ട്നസ്സും കാര്യങ്ങളൊക്കെ തോന്നും അങ്ങനത്തെ കിളികളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കിളികൾ അങ്ങനത്തെ അതായത് തത്ത അങ്ങനെ തത്തേനെ ഒന്നും അങ്ങനെ കാണൽ വളരെ കുറവാണ് തത്തേനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് തത്തേനെ എപ്പോഴെങ്കിലും ഈ ഫുൾ പച്ചക്കളറുള്ള കിളികളുണ്ടാകും അപ്പോൾ തത്തയാണെന്ന് വിചാരിച്ചിട്ട് നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ തത്തേനെയൊക്കെ കാണാറുണ്ട് വല്ലപ്പോഴും ഒന്നോ രണ്ടോ തവണ കണ്ടാലായി അത്രയെ ഉള്ളൂ